നമ്മുടെ സംസ്ഥാനത്ത് മത നേതാക്കൾക്ക് യാതൊരു വിലയും ഇല്ല മത നേതാക്കൾ അവരുടെ മതങ്ങളെ ഉണ്ടാക്കുകയും മതങ്ങളിൽ നിന്ന് പ്രവർത്തനങ്ങൾ ചെയ്യുകയും എന്നല്ലാതെ അവർക്ക് മറ്റ് മതസ്ഥരിൽ നിന്നോ മറ്റ് ആൾക്കാരിൽ നിന്നോ യാതൊരു ആദരവ് ആദരണമോ മറ്റോ ലഭിക്കുന്നില്ല വ്യക്തികളാകുമ്പോൾ ഗുരുക്കൻന്മാരിൽ നിന്ന് ഗുരുക്കന്മാരാണെങ്കിൽ ഗുരുക്കന്മാരെ നമ്മൾ ബഹുമാനിക്കാറുണ്ട് എല്ലാവരും മറ്റ് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അവരെ ആദരിക്കാറുണ്ട് അവരിൽ നിന്നും പല പാഠങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട് അതല്ലാതെ പുരോഹിതന്മാര് സന്യാസിമാരിൽ നിന്നോ നമ്മൾ യാതൊരു പാഠവും പഠിച്ചിട്ടില്ല അതല്ലാതെ അവരിൽനിന്ന് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറില്ല ഗുരുക്കന്മാരിൽ നിന്നും മാത്രമാണ് നമ്മൾ പാഠം ഉൾക്കൊള്ളുന്നതും അവരെക്കുറിച്ച് പഠിക്കുകയും അവരെ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം തന്നെയാണ് കേരളത്തിൽ ഉള്ളത് അഥവാ നമ്മുടെ സംസ്ഥാനത്തിലുള്ളത് അല്ലാതെ പുരോഹിതന്മാരെയോ സന്യാസിമാരെയോ ഞാൻ എന്തായാലും അവരെ ബഹുമാനിക്കുകയോ മറ്റ് കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നില്ല എൻ്റെ ഗുരുക്കന്മാരെ ഞാൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും

ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു